ഹലോ ഹലോ ബ്രോക്കര് ലില്ലിക്കുട്ടി അല്ലേ ആ ഞാൻ പത്തനംതിട്ട ഏരിയാൽ എവിടെങ്കിലും ഞങ്ങൾക്ക് സ്ഥലം ബഡ്ജറ്റ് ഉണ്ടോ കൊടുക്കാനായിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലം ഓ എത്രയാണ് നിങ്ങളുടെ റേ എനിക്ക് ബജറ്റ് ഫ്രണ്ട് അധികം വലിയ റേറ്റ് ആവരുത് ഒരു ഗ്രാമീണ റോഡ് സൈഡിൽ വേണം പക്ഷേ അൻപതോ മെയിന് റോഡ് വലിയ മെയിന് റോഡായിരിക്കാന് വേണ്ട എന്നാൽ ഒരു നല്ല റോഡൊണ്ടായിരിക്കുകയും ചെയ്യണം ബസൊക്കെ ആ പെര വേണ്ട പെര വേണ്ട പക്ഷേ ഇത്രോം റേറ്റിച്ചിരൂടെ കുറഞ്ഞ ത്ര ഇതൊന്നും ഇല്ലേ ഇത്തിരൂടി ബെറ്ററായിട്ടുള്ളത് അത് പ്ലോട്ടായിട്ട് കൊടുക്കുന്നതല്ല അതിന്റെ എത്രയാണ് റേറ്റ് ട റോഡ് സൈഡാണോ ബസ് റൂട്ടൊന്നും ഉള്ളതല്ലാ ആ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ഇച്ചിരെ ബസ് റൂട്ടൊള്ള റോഡായിരിക്കണം ഇച്ചരെ എന്നാലും ഇതിലും നല്ല ഇതിന് എഴുപത്തഞ്ച് ഉള്ളതിന്റെ ഒന്നും ഉള്ളതില്ലെ സെന്റ് ആ ഒന്നുമില്ല ആ കൊടുക്കുകേല ഓക്കെ എനിക്കത് ആ പ്ലോട്ടെന്നു വന്ന് കാണാന് പറ്റും നല്ലതാണോന്ന് നാളെ എപ്പോഴത്തേക്ക് ഓക്കെ ഇത് നിങ്ങളുടെ കമ്മീഷനെത്രയാണ് എഹ് ആഹ് അതെ ഓക്കെ മറ്റ് ഈ പത്ത് സെന്റിനേന് ഒരു ലക്ഷത്തില് കുറയത്തില്ല ഓക്കെ അതൊന്നു കാണാന് പറ്റുവോ അതും വന്നാൽ ഈ കൂട്ടത്തിൽ തന്നെ അതോ രണ്ടും രണ്ടും ഒരേ പ്ലേസിത്തന്നെയാണോ മറ്റേ ഈ ഇത് പത് ആ സ്ഥലം ഒത്തിരി ഓക്കെ നിങ്ങൾ അതിനകത്ത് അല്ല മീന്സ് അടുത്തെല്ലാം ഈ വീടുള്ള അങ്ങനെ ഉള്ള ഏരിയയാണോ അതോ ആണ് അല്ലേ അല്ല അതല്ല ഓക്കെ ഓക്കെ നാളെ എന്നാൽ ഞാന് വരാം എപ്പോഴത്തേക്ക് രാവിലെ വന്നാൽ മതിയോ ആ ശരി